എൻ്റെ പ്രദേശത്തെ എന്നല്ല നമ്മൾടെ കേരളത്തിൽ ഉടനീളം അല്ലെങ്കിൽ ഒരു ഇന്ത്യ എന്ന മഹാരാജ്യത്തുള്ള ഓരോ സംസ്ഥാനത്തെയും കർഷകൻ അനുഭവിക്കുന്ന ദുരവസ്ഥ വളരെ വലുതാണ് ഇപ്പം കർഷകര് ഉണ്ടാക്കിയത് മാത്രമേ നമ്മൾ കഴിക്കൂള്ളൂ ഏഹ് കഴിക്കണ്ട സാധനങ്ങള് അവരുണ്ടാക്കിയാൽ മാത്രമേ നമ്മൾ കഴിക്കൂള്ളൂ ഏഹ് അവര് കഴിച്ചിട്ട് അവർക്കൊരു പിന്തുണ അവർക്കൊരു പിന്തുണ കൊടുക്കാതെ ഈ വലിയ് വലിയ ആൾക്കാർക്ക് മാത്രം പിന്തുണച്ചിട്ട് അതിനെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമൂഹം ഉണ്ട് ഇവിടെ അപ്പം അതിലൊരു ഭാഗമാണ് ഈ ന്യൂസ് മാധ്യമങ്ങൾ ഇപ്പം മാധ്യമങ്ങൾ ഒരിക്കലും സത്യസന്ധത പുലർത്തുന്നില്ല കാരണം അവര് അവരൊരു ന്യൂസ് കിട്ടി കഴിഞ്ഞാൽ അവരതു വിപുലീകരിച്ചിട്ട് അല്ലേ അത് പൊലിപ്പിച്ചിട്ട് അവരൊരു വലിയൊരു ഹൈ ലെവലിലേയ്ക്ക് കൊണ്ടു പോകുന്നു എന്നിട്ട് അത് ഭയങ്കരൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആക്കി മാറ്റുന്നു മാറ്റുന്നു അപ്പം ആ ഒരു ചിന്താഗതി മാറ്റി കഴിഞ്ഞാല് ഇപ്പോൾ അ അപ്പോൾ ആ കർഷർക്കുണ്ടാകുന്ന മനോ അവസ്ഥ മനോവസ്ഥ അത് വളരെ വലുതാണ് അപ്പം കർഷനെ ചൂഷണം ചെയുകയാണ് അപ്പളും അവിടെ ചെയ്യുന്നത് അപ്പ കർഷകര് ചെയ്യാത്ത കാര്യങ്ങളടക്കം ചെയ്തൂ പറഞ്ഞിട്ട് മാധ്യമങ്ങളിൽ കാണിക്കുന്നു അപ്പം അത് മാറ്റി എടുക്കുക എന്നതാണ് ഏറ്റവും ഉചിതമായ ഒരു കാര്യം അപ്പോൾ ഒരിക്കലും മാധ്യമങ്ങള് സത്യസന്ധത പുലർത്തുന്നില്ല കാരണം അവര് ചെയ്യുന്നത് വെച്ചാല് ഭയങ്കര മോശമായ ഒരു പ്രവർത്തിയാണ് എന്തുകൊണ്ടും